എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അഭിമാനകരമായ നിമിഷം എന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ കുറിച്ച് ഇങ്ങനെ ഒരു മകൾ ഉണ്ടായതിൽ അവർ സന്തോഷിക്കുന്ന ഒരു നിമിഷം തന്നെയാണ് അങ്ങനെ വലിയ കാര്യത്തിൽ അവർക്ക് വേണ്ടതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ പത്താം ക്ലാസിൽ പഠിച്ചു ഫുൾ എ പ്ലസ് വാങ്ങിച്ച് അവർക്കൊരു അഭിമാനം ഉണ്ടാക്കാൻ കാര പറ്റിയിട്ടുണ്ട് അന്ന് എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് സന്തോഷിച്ച് അവർ ഒരുപാട് പേരെ ഇങ്ങനെ വിളിച്ച് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് ഫു എൻ്റെ മോൾക്ക് ഫുൾ ഏ പ്ലസ്സാണ് അവൾ നല്ലപോലെ പഠിച്ച് മാർക്ക് വാങ്ങി അത് ഒരുപാട് ആഘോഷിക്കുന്നത് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എനിക്ക് അങ്ങനെ ചെയ്തതിൽ ഞാൻ അഭിമാനിക്കുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് എൻ്റെ പാരൻസിന് ഞാനൊരു അഭിമാനമാണെന്ന് തോന്നിയ നിമിഷം തന്നെയാണ് അതുപോലെ ഞാൻ തൃ ഞാൻ നൂറ് ശതമാനം തൃപ്തയാണ് ഇനി ആണെങ്കിലും ഞാൻ കാരണം അവർ സന്തോഷിക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നും ഉണ്ട് ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് അവരെ വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കാരണം അവർ അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷം ഉണ്ടാകണം എന്ന് അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്